നമ്മുടെ പ്രദേശത്ത് എല്ലാവരും അങ്ങനെ വിനോദ സഞ്ചാരത്തിന് വരുന്ന ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് അരുവിക്കുഴി വാട്ടർഫോൾസ് തന്നെയാണ് അവിടെ ഇതുപോലെ എൻട്രി ഫീ ഉണ്ട് അവിടെ ഇങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരൊക്കെയുണ്ട് നമ്മൾ ചെല്ലുമ്പത്തേക്കിനും നല്ല ആ ചേട്ടൻ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും മീൻസ് അവിടെ കുറച്ച് ആഴമേറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവരുത് കുറച്ച് വഴുവഴുപ്പുള്ള സ്തലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോവരുത് സ്ലിപ്പ് ആവും അങ്ങനെ ഡേൻജർ പ്ലെയിസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും പിന്നെ അവിടെ നമ്മുടെ ആ സ്ഥലങ്ങളിലെ പോലെ ലാംഗ്വേജസിലുള്ള ആൾക്കാരും പല ഡിഫറന്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുമൊക്കെ വരാറുണ്ട് അപ്പോൾ ഗെയിഡറിന് തന്നെ എല്ലാ ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജസും അറിയാം അറിയാം പുള്ളിക്കാരന് കോമൺ ആയിട്ട് നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണല്ലോ നമുക്ക് ഏതൊരു ടൈപ്പ് ഏതൊരു ആൾക്കാർ വന്നാലും ഏത് ടൈപ്പ് ആയിട്ടുള്ള എവിടെ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ പറ്റും പുള്ളിയൊരു നല്ലൊരു സേവനം തന്നെയാണ് നമുക്ക് തരുന്നത്